ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം മറ്റുള്ളവർ ആസ്വദിച്ച് കഴിക്കുന്നതും അവർ എന്റെ എടുത്ത് എന്താണ് പാചകവിദ്യകളൊക്കെ ചോദിക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും പൊതുവേ കുക്ക് ചെയ്യാറുള്ളത് മീൻകറി വയ്ക്കാറുണ്ട് അതുപോലെ തന്നെ എന്താണ് കോവയ്ക്ക അതുപോലെയുള്ള പച്ചക്കറിയൊക്കെ മെഴുക്ക് പുരട്ടാറൊക്കെ ഉണ്ട് അപ്പം എന്റെ അടുത്താണെങ്കിൽ ഈ മെഴുക്ക് പുരട്ടി ഒക്കെ വയ്ക്കുമ്പോഴാണെങ്കിലും അവരൊക്കെ എന്റെ അടുത്ത് അതിന്റെ ഞാൻ കുറച്ചുകൂടി മസാല ഒക്കെ ഇട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ അവർക്ക് ഇഷ്ടമാണ് അപ്പ അവരതിനെ പറ്റി റെസിപ്പി ഒക്കെ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് ഇപ്പോൾ ഫോൺ ചെയ്തൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതല്ലാണ്ട് പാചകം ചെയ്യുമ്പോഴത്തേക്കും കാണിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ വീട്ടിൽ ഒരു അതിഥി വരുമ്പോൾ അല്ലെങ്കിൽ അവർ ഞാൻ മുമ്പുണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടിരുന്നു അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ അതുണ്ടാക്കാനുള്ള സാധനങ്ങൾ വീട്ടിൽ ഉണ്ടെന്നാണെങ്കിൽ ഞാൻ അതങ്ങനെ തന്നെ എടുത്ത് അവരെ കാണിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ പൊടിക്കൈകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അല്ലാണ്ട് ഞാൻ മെസ്സേജ് അയച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അവരൊക്കെ പാചകം ചെയ്യുമ്പോൾ അടുത്ത് നിന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട് ഇങ്ങനൊക്കെയാണ് ഞാൻ മറ്റുള്ളവരെ എൻ്റെ ഒരു പാചകവിദ്യകളൊക്കെ പഠിപ്പിക്കാറുള്ളത് മാത്രമല്ല ഞാൻ ഭക്ഷണം പാകം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോൾ അതെന്നെ ഒരുപാട് സന്തോഷിപ്പിക്കാറുണ്ട്